ഇപ്പൊൾ എന്താ പറയുക ആരോഗ്യപരിപാലനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തില് സാധാരണ കണ്ടുവരുന്നതെന്താന്നു വെച്ചുകഴിഞ്ഞാൽ ആരോഗ്യഇൻഷൂർ പോലുള്ളവയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിലിപ്പോൾ കണ്ടുവരുന്നത് പ്രസവിക്കാനായ സ്ത്രീകൾക്കൊക്കെ ആരോഗ്യ ഇൻഷൂറിണ്ടെങ്കിൽ പ്രസവം പോലുള്ളവയൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊതുവെ എന്താ പറയുക എല്ലാവർക്കും എന്താ പറയുക കൂടുതലും ഫ്രീയായിട്ടുള്ള ചികിത്സകളൊക്കെയാണ് കണ്ടുവരുന്നത് അതായത് ഒപിയെടുക്കാൻ മാത്രം ചെറിയ ചെറിയ പേയ്മെന്റും ബാക്കിയുള്ളതെല്ലാം സൗജന്യമായിട്ടാണ് നമ്മളിപ്പോൾ സമൂഹത്തില് കണ്ടുവരുന്നത് അതൊക്കെയെന്താ പറയുക പാവപ്പെട്ടവരായാലും എന്താപറയുക അങ്ങനെയുള്ളവർക്കൊക്കെ മെച്ചമാണ് കാരണം അവർക്കെങ്ങനെ കൂടുതല് ക്യാഷൊന്നും അങ്ങനെ സ്പെൻറ് ചെയ്യേണ്ടി വരുന്നില്ല അതൊക്കെ നല്ലൊരു പദ്ധതിയായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് എന്താ പറയുക വലിയ വലിയ ഹോസ്പിറ്റലുകളിലാണെങ്കിലും എവിടെയായാലും ഗവൺമെൻറ് നല്ലൊരു സഹായം തന്നെയാണ് കാരണം ഏതു ഹോസ്പിറ്റലിൽ പോയാലും അവർക്ക് വേണ്ട ചികിത്സയില് നല്ലൊരു കിഴിവ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അവർക്ക് പൈസയൊന്നും അവിടെ അധികം ചിലവാകുന്നില്ല ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഇതിൽ നിന്നു ലഭിക്കുന്നുണ്ട് ഇതൊക്കെ എന്താപറയുക നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇത്തരത്തില് നല്ല കാര്യങ്ങളൊക്കെ സമൂഹത്തില് നടക്കുന്നുണ്ട്